നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാ സ്കൂളും ഉള്ളതാണ് ഈ മൂത്രപ്പുരയുടെ പ്രശ്നം മൂത്രപ്പുരയാണെങ്കില് നമ്മള് വളരെ ശുദ്ധമായിട്ടും സംരഷിക്കേണ്ട ഒരു സാധനമാണ് മൂത്രപ്പുര അപ്പം നമുക്കാണെങ്കില് ആവിശ്യമുള്ളതും ഒരു മൂത്രപ്പുരയാണ് അപ്പം എല്ലാ സ്കൂളിലും മൂത്രപ്പുര എന്നുവെച്ചാൽ ഒരു ശുചിത്വം ഇല്ലാത്ത ഒരു വസ്തുവായിട്ടാണ് സാധാരണ എല്ലാ സ്കൂളും കണക്കാക്കുന്നത് അതുപോലെത്തന്നെയാണ് അത് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് വേറെ കുടിവെള്ളമൊക്കെ നല്ല ശുദ്ധമായ കുടിവെള്ളം തന്നെ പുസ്തകങ്ങളും അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കുഴപ്പം ഇല്ല പിന്നെ മേശ കസേര അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാൽ മൂത്രപ്പുരയാണ് നമുക്ക് പ്രശ്നം അപ്പം നമ്മൾ അത് ശരിയാക്കേണ്ടതും അതെല്ലാം നന്നാക്കണം അപ്പം അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൂളിൽ ആയിരുന്നാലും ഇപ്പം മൂത്രപ്പുരയുണ്ട് അതിന് കാര്യം പറഞ്ഞാൽ ഇപ്പം വളരെ ദയനീയമാണ്